മികച്ചതും ആയാസരഹിതവുമായ ജീവിതം നയിക്കാൻ ശാസ്ത്രസാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ പണ്ടുകാലങ്ങളിൽ നമ്മൾ ഒരു പാചകത്തിനു വേണ്ടി നമ്മൾ തേങ്ങ അരക്കുകയാണെങ്കിൽ നമുക്ക് കല്ലിൽ വേണം അരയ്ക്കുവാൻ ഇപ്പോഴത് നമുക്ക് മിക്സി എന്ന ഒരൊറ്റ മെഷിൻ ഉപയോഗിച്ച് നമുക്ക് ആയാസമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അരിയും ഉഴുന്നുമെല്ലാം നമ്മൾ കല്ലിൽ മണിക്കൂറുകളോളം ഇരുന്ന് ആട്ടേണ്ടതാണ് എന്നാൽ ഇപ്പോൾ ആ ഒരു കണ്ടുപിടിത്തം കാരണം നമുക്ക് ഗ്രൈൻഡർ പോലുള്ള ഉപകരണങ്ങൾ കാരണം അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്നതാണ് അതുപോലെതന്നെയാണ് നമ്മുടെ ഓരോ ജീവിതശൈലിയിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാരണം നമുക്ക് ഏറ്റവും ആയാസമായി ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ ഫോൺ അതൊരു വലിയൊരു കണ്ടുപിടിത്തം തന്നെയാണ് ഒരു ശാസ്ത്രസാങ്കേതിക രംഗത്ത് ഒരു പുരോഗതി തന്നെയാണ് കാരണം ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഒരു ലോകത്തിൻ്റെ ഏതറ്റത്തുള്ള സാധനങ്ങളെക്കുറിച്ചും അവിടുത്തെ ആളുകളുടെ ജീവിതരീതിയെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അറിയുവാൻ സാധിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമേ വരുന്നില്ല യാത്രകൾ ഒഴിവാക്കാം നമുക്ക് ഫോൺ ഉപയോഗിക്കാം അല്ലെങ്കിൽ മൈലുകളോളം നടന്നുപോയി പറയേണ്ട അവസ്ഥയില്ല അതുപോലെതന്നെയാണ് നമ്മുടെ വാഹനങ്ങളുടെ കാര്യത്തിലായാലും പണ്ടുകാലങ്ങളിൽ നമ്മൾ ഒരു ആ വിവരം മറ്റുള്ളവരെ ധരിപ്പിക്കണമെങ്കിലോ ഒരു അറിയിപ്പ് അറിയിക്കണമെങ്കിലോ കിലോമീറ്ററോളം നടന്ന് അല്ലെങ്കിൽ കാളവണ്ടികൾ പോലുള്ള വണ്ടികൾ ഉപയോഗിച്ച് വേണം പോകാൻ എന്നാൽ ഇപ്പോൾ അതിവേഗ വണ്ടികൾ ട്രെയിനുകൾ ബസ്സുകൾ മെട്രോ എന്നിങ്ങനെ എത്രത്തോളം ആയാസരഹിതമാക്കും നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി അത്രയും വണ്ടികൾ ലഭ്യമാണ് അത് ഉപയോഗിച്ച് നമുക്ക് ആ സെക്കൻഡുകൾ മിനിറ്റുകൾക്കുള്ളിൽ പോയി വരാവുന്ന കാര്യമേയുള്ളൂ അങ്ങനെ എല്ലാംകൊണ്ടും ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ജീവിതരീതിയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് വളരെ ആയാസരഹിതമാക്കാൻ ഇനിയും ഓരോ കണ്ടുപിടിത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു